നമ്മുടെ വീട്ടിൽ ടേബിൾ ഫാനാണ് ഏറ്റവും നല്ലത് ടേബിൾ ഫാനിൻ്റെ കാറ്റുപോലെ സീലിംഗ് ഫാനിന് ഉണ്ടായിരിക്കുകയില്ല ടേബിൾ ഫാനാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എത്ര വേണങ്കിലും കാറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് ടേബിൾ ഫാനിൻ്റെ ഗുണം സീലിംഗ് ഫാനിന് ഉണ്ടായിരിക്കയിരികൂല്ല അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കില് സീലിംഗ് സീലിംഗ് ഫാന് വാങ്ങാതെ ടേബിൾ ഫാന് വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം അതുകൊണ്ട് എല്ലാവരും ടേബിൾ ഫാന് ഫാന് വാങ്ങാൻ ശ്രമിക്കുക നമുക്ക് ചൂട് കുറയ്ക്കണേൽ അല്ല തണുപ്പ് കുറയ്ക്കണേൽ കുറയ്ക്കാം കൂട്ടിവെക്കണേൽ കൂട്ടിവെക്കാം എന്തുവേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് സീലിംഗ് ഫാനാണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രേ കാറ്റ് കിട്ടുള്ളു നമുക്ക് നമുക്ക് വേണമെന്നുള്ളിടത്ത് കിട്ടൂല അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ടേബിൾ ഫാന് എല്ലാവരും വാങ്ങുക